ഞാൻ ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ് അപ്പം തന്നെ നമുക്ക് ഹിന്ദു മതത്തിൽ ഒരുപാട് ആരാധനാലയ്ങ്ങളും ഒരുപാട് ദൈവങ്ങളും ഒരുപാട് തെയ്യം തറ പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് വച്ചാൽ എല്ലാരും രാവിലെ എഴുന്നേറ്റു കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് പോവുന്നത് തന്നെ നമുക്ക് മനസ്സിന് തന്നെ ഒരു ആശ്വാസമുള്ള കാര്യമാണ് പിന്നെ പോയിട്ട് വരുമ്പോഴും പിന്നെ നമുക്ക് മാസത്തിൽ ഒരു സംക്രമം പോലത്തെ വിശ്വാസങ്ങളും പിന്നെ എല്ലാ ആരാധനാലയങ്ങളിലും വേറെ വേറെയായിട്ടുള്ള ഒരോരോ ഭജനകളും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിരിക്കുന്നതിൽ തന്നെ മനസ്സിനൊരു ആശ്വസവൊള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഒരു കൂട്ടപ്രാർഥന ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വെള്ളാട്ടം പോലത്തെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കൊല്ലത്തിലൊരിക്കൽ നിർബന്ധമായും എല്ലാ കുടുംബാംഗങ്ങളും ചേർന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് എല്ലാ കുടുംബാങ്ങളെയും ഒന്നും കൂടി കാണാൻ പറ്റും ഒരു ഗേറ്റ് ടുഗെതർ തന്നെ ആയിട്ട് അതിൽ നിൽ ക്കാൻ പറ്റും പിന്നെ അതെന്നു വച്ചാൽ ഇതിൽ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എ ന്ന് വച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോയി വന്നാൽ എല്ലാ പ്രാർത്ഥനകളിൽ ഒക്കെ ചേർന്നാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ് ഈ ആരാധനാലയങ്ങളിൽ പോകുന്നത് തന്നെ